എൻ്റെ പ്രദേശത്ത് പ്രത്യേക നെയ്ത്ത് അല്ലെങ്കിൽ തുന്നൽ രീതികളെക്കുറിച്ചുള്ള വിദ്യകൾ പറയാനാണെങ്കിൽ അങ്ങനെ എടുത്ത് പറയാനായിട്ടില്ല എന്നാൽ എൻ്റെ പ്രദേശത്ത് ഒരുപാട് തയ്യൽ കേന്ദ്രങ്ങളുണ്ട് വനിതകൾ നടത്തി വരുന്ന ഒരുപാട് തയ്യൽ കേന്ദ്രങ്ങളുണ്ട് അവിടെ ഞാനിപ്പോൾ എനിക്കെന്തെങ്കിലും തയ്ക്കാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനതവരെ ഏൽപ്പിക്കാറുണ്ട് നമ്മൾ പറഞ്ഞ് കൊടുക്കുന്ന മോഡലില് അവരത് തയ്ച്ച് തരാറുണ്ട് വളരെ നല്ല വൃത്തിയായിട്ട് തന്നെ തയ്ച്ച് തരാറുണ്ട് അതുകൊണ്ട് കൊടുക്കുന്ന പൈസക്ക് കുറവൊന്നും വരാറില്ല ഞാനും എനിക്കും തയ്ക്കുന്നത് വളരെ ഇഷ്ടമാണ് കുഞ്ഞുടുപ്പുകളൊക്കെ ആദ്യം തയ്ച്ച് നോക്കും ചെറുതായിട്ട് തയ്ച്ച് നോക്കും ഈ മോഡലിലത് കൊള്ളാമോ ഞാൻ തയ്ച്ചാൽ റെഡിയാകുമോ എന്ന് നോക്കി ഞാൻ തയ്ക്കാറുണ്ട് അപ്പോൾ അത് ശരിയാവാറുണ്ട് അല്ലാതെ ഞാനൊരു പരമ്പരാഗത വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇന്നതെന്ന് എടുത്ത് പറയാനായിട്ടില്ല പക്ഷേ ഞാൻ തയ്ക്കാറുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ചുരിദാറുകളും അതിൻ്റെ മോഡലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് തയ്ച്ച് നോക്കാറുണ്ട് അപ്പോൾ അത് ചില സമയത്തത് അത് ശരിയാകാറുണ്ട് ചിലപ്പോളത് സമയത്ത് ശരിയാവാറില്ല എന്നിരുന്നാലും പ്രദേശത്ത് എൻ്റെ വീടിനടുത്തുള്ള തയ്യൽ കേന്ദ്രങ്ങളിലെ ചേച്ചിമാർ നന്നായിട്ട് ചെയ്ത് തരാറുണ്ട് അവരോട് നമ്മളിപ്പം മോഡല് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവരത് പോലെ ചെയ്ത് തരും പിന്നെ ഏതാണ് ഇപ്പോൾ കളർ കോമ്പിനേഷനായാലും അവരത് പറഞ്ഞ് തരാറുണ്ട് ബ്ളൌസ് ചുരിദാറ് അങ്ങനെയുള്ള എന്തും അവർ നല്ല വൃത്തിക്ക് തന്നെ തയ്ച്ച് തരാറുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു കുടുംബ ശ്രീ യൂണിറ്റ് എന്നുള്ള രീതിക്കാണ് ഇവരുടെ ഇവിടെ തയ്യൽ പരിശീലന കേന്ദ്രങ്ങളും തയ്യൽ കേന്ദ്രങ്ങളും നടത്തുന്നത് തയ്യൽ പരിശീലന കേന്ദ്രത്തിലാണെങ്കിൽ ഒരുപാട് പേർക്കവർ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് തയ്ക്കാൻ